ഹലോ കാർമൽ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആണ് സംസാരിക്കുന്നത് ആരാണ് ആ ഗ്രീഷ്മ ആ പറയൂ മാം അതെയോ എത്രാം ക്ലാസ്സിലെ പിള്ളേരാണ് അതെയോ അപ്പം എന്താ ഇപ്പം ഇങ്ങനെ നാലാം ക്ലാസ്സിലേക്ക് ഇപ്പം ഒരു കുട്ടിക്ക് അഡ്മിഷൻ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ എന്താ ചോദിച്ചതെന്ന് വച്ചാൽ കുട്ടിയുടെ വല്ല ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് കാരണം വല്ല സ്കൂളിൽ നിന്ന് ഡിസ്മിസ്സല് കിട്ടിയിട്ട് അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഞങ്ങളെ സ്കൂളിന് ആ ഓക്കെ മാം ഓക്കെ എന്താണെന്ന് വച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ നിന് ഇന്ന് അത്രയും നല്ലൊരു പേര് ഉള്ളൊരു സ്കൂൾ ആണല്ലൊ കാർമൽ എന്ന് കേട്ടാൽ നിങ്ങൾ കേട്ടിട്ട് ഉണ്ടാകുമല്ലോ അതെയോ ആ അപ്പം ആ അപ്പം എന്തുകൊണ്ടാണ് കെ വിയിലെ അത് നോക്കാതെ ഇപ്പം ഇവിടേക്ക് വന്നത്

ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം സ്കൂളിൻ്റ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സ്കൂളൊക്കെ അക്കാദമിക് ലെവലിലും ബാക്കി എല്ലാ ലെവലിലും മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് ആർട്സിൽ ആയാലും സ്പോർട്സിൽ ആയാലും അക്കാദമിക്കിലും ഒക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് അപ്പം ഈ ഭാഗത്ത് പാലക്കാട് ജില്ലയിലെ നമ്പർ വൺ ഒരു സ്കൂള് തന്നെ ആണ് കാർമല് ആ അപ്പോൾ ഏതൊക്കെ എൽ കെ ജിയിലേക്ക് ആണല്ലെ എൽ കെ ജിയും നാലാം ക്ലാസ്സും ഫീസ് ഒക്കെ നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയെ വരുന്നുള്ളൂ ഒരു വർഷം ഒരു കുട്ടിക്ക് ട്വൻ്റി ഫൈവ് തൗസൻ്റ് ആയിട്ട് ആണ് വരിക ബാക്കി എക്സ്ട്രാ യൂണിഫോം ബുക്ക്സ് ഒക്കെ വേറെയാണ് എക്സ്ട്രാ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഇല്ല ഇല്ല അത് എങ്ങനെയാണെന്ന് വച്ചാൽ നമ്മൾക്ക് സ്കൂളിൽ തന്നെ ഉണ്ട് സ്കൂളിൽ ഉണ്ട് സംഭവം ഉണ്ട് പക്ഷെ നിങ്ങൾ എക്സ്ട്രാ ഫീസ് എടുത്തിട്ട് അത് അവിടെ നിന്നുതന്നെ മേടിക്കണം പുറത്തു നിന്ന് മേടിക്കാൻ പറ്റില്ല എല്ലാ ബുക്കുകളും എല്ലാ ബുക്കുകളും കോളേജ് സ്കൂളിൽ അവൈലബിൾ ആണ് പ്ലസ്ടു വരെ ഉള്ള സ്കൂൾ ആണെന്ന് അറിയാമല്ലോ എല്ലാ ബോയ്സ് ഗേൾസും ബോയ്സും എല്ലാവർക്കും ഉള്ള നല്ല ഒരു സ്കൂള് തന്നെയാണ് അപ്പം അവർക്കെല്ലാം സംഭവം യൂണിഫോമ്സ് ബുക്ക്സ് എല്ലാം അവൈലബിൾ ആണ് പക്ഷെ അത് നിങ്ങൾ ടൈമ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ ആണ് കുട്ടികൾക്ക് സ്കൂള് പിന്നെ ചെറിയ പിള്ളാർക്ക് ഒക്കെ ഒരു ഏഴാം ക്ലാസ് വരെയുള്ള പിള്ളാർക്ക് ഒരു പതിനൊന്നര മണിക്ക് നമ്മുടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട് ആ സമയത്ത് നമുക്ക് അവർക്ക് വല്ല സ്നാക്ക്സ് എന്തെങ്കിലും കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് ഹവർ ഉണ്ട് ലഞ്ച് ഒക്കെ ഫുഡ്ഡ് വീട്ടിൽ നിന്നുതന്നെ കൊണ്ടുവരണം പിള്ളേർക്ക് എന്തായാലും നീറ്റ് ആക്കി കൊടുത്തു വിടണം ചെറിയ കുട്ടികൾക്കൊക്കെ അവിടെ ആ ആ ചെറിയ അത് കുട്ടികൾക്കൊക്കെ അവിടെ ആയമാർ ഉണ്ട് അവരെല്ലാം ശരിയാക്കിക്കോളും അതിന് ഒന്നും ഒരു പേടിയും പേടിക്കണ്ട കുട്ടികൾ എല്ലാവരും ഇവിടെ സേഫ് ആയിരിക്കും അതിന് ഒന്നും ഒരു പേടിയും വേണ്ട അവർ എല്ലാവരും സേഫ് ആയിരിക്കും അപ്പോൾ അവർക്ക് എല്ലാം ഇൻ്റർവെൽ ഉണ്ട് പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്നെ മൂന്ന് ബ്രേക്ക് അവൈലബിൾ ആണ് അതായത് രാവിലത്തെ ടിഫിൻ ബ്രേക്കും പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ച് ബ്രേക്കും പിന്നെ വൈകുന്നേരം ഒരു ബ്രേക്കും കൂടി ഉണ്ട് പിന്നെ പി ടി അവൈലബിൾ ആണ് പി ടിക്ക് ഒരു ഇവിടെ മാം ടീച്ചേർസ് ഉണ്ട് അവർ നിങ്ങളെ ഓ ഉണ്ട് ഉണ്ട് ലൈബ്രറി ആണ് ഏറ്റവും മെയിൻ അട്ട്രാക്ഷൻ എന്ന് പറയണത് ഏറ്റവും അത്രയും വലിയ ലൈബ്രറി ഇലക്ട്രിക്ക് ലൈബ്രറി തന്നെ ആണ് അപ്പം നമ്മൾക്ക് എന്താണെന്ന് വച്ചാൽ ഫോണിലും എല്ലാം നോക്കാം പിന്നെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല കമ്പ്യൂട്ടർ ലാബ് ഉണ്ട് ഇവിടെ എല്ലാം കൂടി നമുക്ക് അല്ല കുട്ടികൾക്ക് ഇപ്പം നല്ലൊരു നല്ലൊരു ഫ്യൂച്ചറ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സ് എല്ലാ പാരൻ്റ്സിനും നമുക്ക് സ്റ്റുഡൻ്റ്സിനെ ഇവിടെ ചേർക്കാവുന്നതാണ് അപ്പം മാം മാം ഇൻ്ററസ്റ്റഡ് ആണെങ്കിൽ എന്നാണ് വേണ്ടതെന്നു വച്ചാൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നോളൂ ഹസ്ബൻ്റ് എന്തു ചെയ്യുന്നു ഹസ്ബൻ്റ് എന്തു ചെയ്യുന്നു അതെയല്ലേ ഓക്കെ ഓക്കെ അപ്പം എല്ലാവരും എങ്ങനെയാണെന്ന് വച്ചാൽ സൗകര്യം എന്നാണ് സൗകര്യം വച്ചാൽ ആരെ കൂട്ടിയിട്ട് വേണം വച്ചാൽ കുട്ടികളെ വന്ന് ചേർന്നോളൂ അവരുടെ ആധാർ കാർഡ് അങ്ങനെ എല്ലാ അവരുടെതായ പേഴ്സണൽ ഡോക്യൂമെൻ്റ്സ് ഒന്ന് വേഗം അയക്കുമോ

ഓക്കെ ഓക്കെ താങ്ക് യൂ